ഞാൻ എനിക്ക് പുതിയതായിട്ടൊരു ഫോൺ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരു മുപ്പതിനായിരത്തിന് താഴെ വരുന്ന റേറ്റിൽ നിൽക്കുന്ന ഒരു ഫോൺ മതി അപ്പം പക്ഷേ അതിനു നല്ല ക്യാമറ ക്ലാരിറ്റിയും നല്ലതുപോലെ ഉണ്ടായിരിക്കണം നൂറ്റി ഇരുപത്തിയെട്ട് ജി ബി എങ്കിലും ഉള്ള നല്ലൊരു ഫോൺ തന്നെ ആയിരിക്കണം അപ്പം അതിനു പറ്റിയ ഫോണുകളൊക്കെ ഏതാണെന്നുള്ളതൊന്ന് ശുപാർശ അതിനു പറ്റിയ ഫോണുകൾ ഏതാണെന്ന് പറഞ്ഞുതരികയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും